അപ്പം അതൊക്കെ എനിക്ക് വളരെ ഉപകാരപ്രദമാണ് കാരണം എന്നു വെച്ചാൽ നമുക്ക് ബസ്സ് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും പിന്നെ പുതിയ പുതിയ പണ്ടത്തെപ്പോലെയല്ല നമക്കിപ്പോൾ മെട്രോ സ്റ്റേഷൻ അതുപോലെ പുതിയ പുതിയ ട്രെയിനുകൾ അപ്പം അതല്ലാതെ നമുക്ക് ഫ്ലൈറ്റ് അതായത് പുതിയ പുതിയ കുറേ നമുക്ക് നിരത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാണ് നമുക്ക് യാത്രകളാണെങ്കിലും ഇപ്പോൾ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു ടാക്സി കാറ് വിളിക്കാം അപ്പോഴതുപോലെ നമുക്ക് കുറച്ച് ലക്ഷ്വറി കാറുകളാണെങ്കിൽ അങ്ങനെ അങ്ങനെ അപ്പം കുറച്ച് നമുക്ക് വളരെ ഗുണകരമായ രീതിയിലാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം എന്നു വെച്ചാൽ ഇപ്പം നമുക്ക് കാണുന്ന നിരത്തിലോടുന്ന വണ്ടികളൊക്കെയാണ് നമുക്കിതെല്ലാം ഈ ടാക്സിയായിട്ട് നമുക്ക് കിട്ടും അതുപോലെത്തെ രീതികളാണ് നമുക്ക് ടാക്സിയായിട്ട് കിട്ടും നമുക്ക് റെൻ്റിനായിട്ട് കിട്ടും നമുക്ക് അതുപോലെ ട്രാൻസ്പോട്ടേഷന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പണ്ടത്തെ പോലെയല്ലിപ്പോൾ നമുക്ക് സ്വന്തം കാറുപോലെ നമുക്കൊരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതാണിപ്പോൾ റെൻ്റിനെടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ വാടകയ്ക്ക് വണ്ടി നമുക്ക് കിട്ടും അപ്പോഴങ്ങനെ കുറേ ഉപകാരങ്ങൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ പുതിയതായിട്ടുള്ള നിരത്തിലോ ഈ രീതിയിലുണ്ട്